നമ്മളെ നാട്ടിൽ എല്ലാ ആഴ്ചയും ചന്ത വരാറുണ്ടായിരുന്നു നമ്മൾ ഞാൻ ചെറുതിൽ കുഞ്ഞിലെ ഉണ്ടാവുമ്പോൾ ചന്തയിൽ പോകുന്നെന്ന് അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒന്നിച്ച് പോകുന്നെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അമ്മയുടെ ഒന്നിച്ചിട്ടാണ് കൂടുതൽ ഞങ്ങൾ ചന്തയിൽ പോവാറ് പച്ചക്കറി വാങ്ങാനും അല്ലെങ്കിൽ കുഞ്ഞോൾ പുതിയ ഉടുപ്പ് വാങ്ങാനും എന്താണെങ്കിലും നമ്മൾ ചന്തയിൽ നിന്നുതന്നെ വാങ്ങാറുണ്ടായിരുന്നു വില കുറച്ച് ബാർ നമ്മൾ എന്ന് പറഞ്ഞാൽ അവരോട് ചർച്ച ചെയ്ത് നമുക്ക് ഏറ്റവും കുറവ് വിലയിൽ കിട്ടുന്നത് ചർച്ച ചന്തയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പച്ചക്കറി വാങ്ങും ഉരുളക്കിഴങ്ങ് തക്കാളി വെണ്ടയ്ക്ക മുരിങ്ങയ്ക്ക അങ്ങനെ എല്ലാ ത എന്ന് പറഞ്ഞാൽ ചന്തയിൽ ഏറ്റവും കൂടുതലായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്താലാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് നം പിന്നെ നല്ലത് നോക്കിയിട്ട് വാങ്ങാൻ കഴിയും പണ്ടെല്ലാം അങ്ങനെയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും മാളിലും ഓൺലൈൻ ആയിട്ടും എല്ലാമാണ് വാങ്ങിക്കൽ പക്ഷേ പണ്ട് നമ്മൾ ചെറുത് ഇത് ഇരിക്കുമ്പോൾ ഇങ്ങനെ പോവുന്നത് ഒര് സുഖമാണ് കുട്ടികൾ ഒന്നിച്ചിട്ട് ഇങ്ങനെ പോവുന്നു വാങ്ങുന്നു ഇതാക്കുന്നു നമുക്ക് പുതുവൽ പുതിയൊരു ഉടുപ്പെല്ലാം വാങ്ങുന്നത് ചന്തേലെടാന്ന് ചന്തയിൽ നിന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങനെ അവരിങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു അതിനെത്ര ഇതിനെത്ര മറ്റേതിനെത്ര ഇങ്ങനെ വിലയും ചോദിച്ചിട്ട് ആ വിലയിൽ പിന്നെയും അവരോട് ചർച്ച ചെയ്തിട്ട് ആ ചർച്ച ചെയ്തിട്ട് അവർക്കൊരു അവരൊരു വില പറയുക നമ്മളൊരു വില പറയുക അതിന് പിന്നെയും ചർച്ച ചെയ്തു പിന്നെ അത് വാങ്ങും അതുപോലെ തന്നെ ഇത് മാത്രമല്ല ചന്തയിൽ നിന്ന് പറഞ്ഞാൽ നമ്മളെ ദിവസവുമുള്ള പച്ചക്കറി മാത്രമല്ല നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ എല്ലാ സാധനങ്ങളും എടുക്കും കു പെൺകുട്ടികളുടേത് ചെരുപ്പും തൊട്ട് പിന്നെയോ നമ്മൾ പെൺകുട്ടികൾ യൂസ് ആക്കുന്നില്ലേ നമ്മൾ കുറിയോ സിന്ദൂരമോ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ ചന്തയിൽ നിന്നാണ് വാങ്ങിയിരുന്നത് ചന്തയിൽ വാങ്ങുന്ന സാധനം എല്ലാം നല്ലത് എന്ന് അല്ല എന്നാലും വളരെ നല്ലതുമുണ്ട് മുമ്പുള്ള കാലത്ത് നമ്മൾ സ്വന്തം വീട്ടിൽ കൃഷി ചെയ്തതാണ് നമ്മൾ പണ്ടത്തെ കാലത്തെല്ലാം യൂസ് ചെയ്തിരുന്നത് ഇപ്പോഴങ്ങനെ അല്ലല്ലോ ഇപ്പം ചന്തയിൽ നിന്നാണ് ഇപ്പം എന്നല്ല കുറച്ച് കാലം മുമ്പേ ചന്തയിൽ നിന്നായിരുന്നു കൂടുതൽ എല്ലാവരും വാങ്ങിക്കൊണ്ടുണ്ടത് നമ്മളെ നാട്ടിലെ ചന്ത എന്ന് പറഞ്ഞാൽ വലിയതാണ് കുറേ വലുതാണ് ഇങ്ങനെ സാധാരണ ഈ ഈ തലയിൽ നിന്ന് തൊട്ട് സാധാരണ ഒരു പത്ത് അമ്പത് അറുപത് മീറ്റർ ദൂരം വരെ ഇങ്ങനെ ചന്ത ഇങ്ങനെ നിരന്ന് കിടക്കും അതിലാണെങ്കിലോ തരം തരം നല്ല പച്ചക്കറിയും ഫ്രൂട്സും എല്ലാം ഒരു സാധനം കിട്ടുമോ ഒരു സാധനം കിട്ടില്ല അങ്ങനത്തെ ഒരു ഇതേ ഇല്ല ആട എല്ലാ സാധനങ്ങളും അത്രയും ഇത് ചന്തേയ് വാങ്ങുന്നെന്ന് പറയുമ്പോൾ തന്നെ ആ ശനിയാഴ്ച ചന്ത വരുന്നു ചന്തയിൽ പോവണം ചന്ത എന്ന് പറഞ്ഞ അതുതന്നെ ഒരു സന്തോഷമാണ് നമ്മളിങ്ങനെ അതിന് വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ നമ്മളെ നാട്ടിലെ ചന്തയിൽ എല്ലാ സാധനങ്ങൾക്കും വില കുറച്ച് മാത്രമല്ല അവർ ചിലപ്പോൾ കൂടുതൽ പറയും ഏറ്റവും കൂടുതലാണ് അവർ പറയൽ ആദ്യം തൊട്ട് പറയൽ നമ്മളത് ഇങ്ങനെ അവരെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് കുറച്ചിട്ട് വരലാണ് അല്ല ഇപ്പം എല്ലാ സാധനങ്ങളും ഉണ്ട് ചന്തയിൽ ഇപ്പോളും അങ്ങനെയാണ് ചന്തയിലുണ്ട് പക്ഷേ ഇപ്പം കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് എല്ലാവരും ഷോപ്പിങിലും ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്യും ഓൺലൈൻ ബുക്ക് ചെയ്ത് ചില വസ്തുക്കൾ നല്ലതുണ്ടാകും ചില വസ്തുക്കൾ നല്ല തീരെ മോശമായതും വരാറുണ്ട് അപ്പം നമ്മൾ ചന്തയിൽ പോയിട്ട് വാങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എൻ്റെ തോന്നൽ പിന്നെ നമ്മളെ കുട്ടികൾക്കും ഇതേ ഇത് പറഞ്ഞ് കൊടുക്കന്നതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കുട്ടികളൊടും പറയലുണ്ട് ചന്തയിൽ പോവണം ബാർഗെയിൻ ചെയ്ത് അവർക്കും നമ്മൾ ചർച്ച ചെയ്തിട്ട് വാങ്ങാനുള്ള ആ ഒരു വില അവർ ചന്തയിൽ ആൾ വിൽക്കുന്ന ആൾക്കാരുടെ കഷ്ടപ്പാടും അതെല്ലാം കുട്ടികളും അറിഞ്ഞ് വളരണം എന്നാണ് നമ്മളെ ഒരിത് അപ്പോൾ കുട്ടികളും മുമ്പോട്ട് അത് അറിഞ്ഞ് വളരുന്ന അവർക്കും മറ്റവരെ കഷ്ടപ്പാടും ഈ ഇതുണ്ടാക്കാൻ ഇത്ര കഷ്ടപ്പാടുണ്ട് ഇത് ഇത് കൊണ്ട് ഞങ്ങൾക്ക് ഈ പൈസ കൊണ്ട് ഇത്ര പൈസ കൊണ്ട് ഇത്ര സാധനം വാങ്ങാൻ പറ്റും എത്ര ചിലവ് ചുരുക്കാം എത്ര ചിലവിലൂടെ ഞങ്ങൾക്ക് ഇത്ര സാധനം വാങ്ങാം ഇന്ന സാധനത്തിന് ഇത്ര റേ ഇത് വില ഇങ്ങനെയുള്ള എല്ലാം അറിയാൻ പറ്റും അവർക്ക് അവർ ഇതെന്നല്ല അവർക്ക് എല്ലാ കാര്യത്തിലും ഇതുകൊണ്ട് അവർ എന്താണ് പറയുക എക്സ്പീരിയൻസ് ആവും അവർക്ക് ജീവിതത്തിൽ എല്ലാം അനുഭവിച്ച് അറിയണം എന്നാണ് എന്ന പക്ഷമാണ് എൻറേത് അപ്പോൾ കുട്ടികളും ഇതുപോലെ അവരെ നമ്മൾ പഠിപ്പിച്ചാൽ അവരും അങ്ങനെ ചന്തയിൽ പോയിട്ട് വാങ്ങുന്നതും ഇതെല്ലാം പഠിച്ചാൽ അവർക്ക് ഭാവിയിലും എന്തൊരു കാര്യത്തിനും ആലോചിച്ച് മാത്രമേ ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ പിന്നെ എന്ന് പറഞ്ഞാൽ